എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ശേഖരിയ്ക്കാൻ തുടങ്ങിയത് തന്നെ അഞ്ചാം ക്ലാസ്സ് തൊട്ടാണ് ഞാന് ഞാൻ യൂപി സ്കൂ ക്ളാസുകളിൽ പഠിക്കുമ്പം അവിടെ ഇങ്ങനെ എന്താണ് ഓരോ പറഞ്ഞ ഓരോരോ മേളകൾ നടക്കും അതായത് ശാസ്ത്ര മേള അങ്ങനെ ഓരോരോ മേളകൾ നടക്കുമ്പം അതിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കിനും പറഞ്ഞാല്ല് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാം ശേഖരിക്കാൻ തുടങ്ങിയത് ഞാൻ പണ്ട് സ്റ്റാമ്പുകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പണ്ട് നമ്മളീ റോട്ടിൽക്കൂടിയൊക്കെ നടക്കുമ്പോൾ സാധനങ്ങളൊക്കെ വീണ് കിടക്കുന്നതു കാണുമ്പം അതൊക്കെ എടുത്ത് വെയ്ക്കുമായിരുന്നു പിന്നീ പറയുന്ന കള്ളികൾ നാണയങ്ങൾ പണ്ടത്തെ നാണയങ്ങളൊക്കെ ശേഖരിച്ച് വെയ്ക്കുമായിരുന്നു പിന്നെയെന്ന് പറയുമ്പം എൻ്റെ അച്ചച്ചനൊക്കെ ചേ അച്ചച്ചൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ അവരു ഉപയോഗിച്ച് കൊണ്ടിരുന്ന കുറേ നാണയങ്ങൾ അച്ചച്ചൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പണ്ടെപ്പോഴോ ഒരു പെട്ടി ഒക്കെ എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് അവർ എനിക്കാ നാണയം തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ പണ്ടത്തെ സ്റ്റാമ്പുകൾ ഇതെല്ലം എൻ്റെ ബുക്ക് ഒരു ബുക്കിൽ ഞാനി സ്റ്റാമ്പുകളെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് അതൊക്കെ എടുത്തു നോക്കുമ്പോൾ കാരണം ഒരുപാട് ഒരുപാട് നാൾക്കുള്ളത് അതായത് അച്ചച്ചൻ്റെയും ചെറുപ്പത്തിൽ അതായത് മൂന്ന് തലമുറയ്ക്ക് മുമ്പുള്ള നാണയങ്ങൾ വരെ ഇന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒരു എന്താ പറയിക ഞാൻ ഭയങ്കര ക്യൂറിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് കാരണം ഇന്ന് യൂസ് ചെയ്യുന്ന മണി പോലും അല്ലേല് ഈ കഴിഞ്ഞ കാലത്തെ മണി പോലും ഇന്ന് ആരുടേയും കയ്യിലില്ല കാരണം അവർക്ക് എല്ലാവരും അതിനോടൊരു താത്പര്യം ഉള്ളവരായിരിക്കില്ല പക്ഷേ ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ട് മാത്രമാണ് ഇതെല്ലം ശേഖരിച്ച് വെച്ചത് ഞാൻ മാത്രമാണ് അങ്ങനെ ശേഖരിച്ച് വെക്കുക എന്നൊന്നുമല്ല ഇതുപോലെ എന്നെപ്പോലെ ശേഖരിച്ച് വെക്കുന്ന എന്നെക്കാൾ കൂടുതൽ ശേഖരിച്ച് വെച്ച ഒരുപാട് പേരുണ്ടാകും പിന്നെയെന്ന് പറയുന്നത് ഈ നാണയങ്ങളും എല്ലാം ഇപ്പം എനിക്കിത് കാണാൻ പറ്റിയത് എൻ്റെ അച്ചച്ചനും അച്ഛനും ഇത് എല്ലാം ശേഖരിച്ച് വെച്ചതു കൊണ്ടാണ് ഇനിയിപ്പം എൻ്റെ ഒരു തലമുറ വരുമ്പം എനിക്കവരെ കാണിച്ചു കൊടുക്കാം ഇതായിരുന്നു പണ്ടത്തെ ഒരു നാണയം അല്ലേ പണ്ടത്തെ സ്റ്റാമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നുവെന്ന് പറഞ്ഞ് എനിക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പം അത് എൻ്റെ ഒരു എൻ്റെ ഒരു ഗ്രെയ്റ്റ്ഫുള്ളായിട്ട് ഒരു മൊമന്റ് എന്ന് പറയുന്നത് തന്നെ അതായിരിക്കും കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഇന്ന് ഇപ്പം പണ്ടത്തെ കാര്യങ്ങളെല്ലാം അന്ന് തന്നെ കഴിഞ്ഞു അല്ലേല് പണ്ടത്തെ ജീവിതം എല്ലാം മാറി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അപ്പം നമുക്ക് നല്ല ഇതായിട്ടു പറയാം കാരണം അന്നത്തൊരു കാര്യം നമ്മളിന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന അത് അത്രയും വലിയൊരു കാര്യം തന്നെ ആയിട്ടാണ് എനിക്കു തോന്നുന്നത്